ആ ഇത് കുന്നുകണ്ഠത്തിൽ ഗ്യാസ് ഏജൻസി അല്ലെ ആ എനിക്ക് ഇവിടെ ഒരു ഒരു ഡബിൾ സിലിണ്ടർ കണക്ഷൻ ഉണ്ടായിരുന്നു അത് ഇപ്പം ഞങ്ങൾ ഇപ്പം താമസം ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് ഒരു വീടൊക്കെ വാങ്ങിച്ചു അപ്പം ഞങ്ങൾ അങ്ങോട്ടൊന്ന് മാറി താമസിക്കാനുള്ള ഉദ്ദേശമാണ് അപ്പം എനിക്ക് നമുക്ക് തന്നിരിക്കുന്ന ഗ്യാസ് കണക്ഷന് ഇവിടുള്ള നിലവിലുള്ള ഗ്യാസ് കണക്ഷന് ഒരു കണക്ഷൻ ഉള്ളപ്പോൾ നമുക്ക് വേറെ ഒരു കണക്ഷൻ കൂടെ തരികയില്ല കിട്ടില്ലല്ലോ അത് ഗവൺമെൻ്റ് നിയമപ്രകാരം നമുക്ക് അങ്ങനെ ഒന്നും പുതിയ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ കണക്ഷൻ കൊടുക്കാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് ഞാൻ മനസിലാക്കുന്നത് അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഒരു സ്ഥലത്തേക്ക് മാറുകയാണ് അവിടെ ഒരു വീടും അതിനോട് കുറച്ച് സ്ഥലങ്ങളൊക്കെ അതിൽ സാഹചര്യങ്ങളൊക്കെ ഒന്ന് മാറി അതു തന്നെയല്ല മക്കൾ താമസം വരുമ്പം മാറി താമസിക്കുകയാണ് അപ്പം പുതിയ വീടാണ് ആ പുതിയ വീട്ടിലേക്ക് നമുക്ക് ഈ കണക്ഷൻ നിലവിലുള്ള ഗ്യാസ് കണക്ഷനെ ഒന്ന് അങ്ങോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ നമ്മൾ രേഖകളാണ് നമ്മൾ അവിടെ തരണ്ടിയത് ഗ്യാസിൻ്റെ കണക്ഷൻ്റെ അപ്പോൾ ആ ബുക്കോ പിന്നെ നമ്മുടെ ആ കണക്ഷൻ തന്ന ആ സർട്ടിഫിക്കറ്റോ എന്തൊക്കെയാണോ ആവശ്യം എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതെനിക്ക് അവിടെയുള്ള അവിട സബ്മിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് മേടിക്കണമല്ലോ ഗ്യാസ് കണക്ഷൻ്റെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് മേടിച്ച് ആ പുതിയ സ്ഥലത്ത് അതിന് അടുത്ത ഗ്യാസ് ഏജൻസി വേണ്ടെ നമ്മൾ ഈ പേപ്പർ അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് അവിടെ സബ്മിറ്റ് ചെയ്താൽ എനിക്ക് എത്ര ദിവസത്തിനുള്ളിൽ എനിക്ക് അവിടെ നിന്ന് കണക്ഷൻ കിട്ടും എനിക്ക് സിലിണ്ടറിൻ്റെ ഡെലിവറി കിട്ടും കാരണം നമുക്ക് അടുപ്പൊക്കെ കത്തിക്കണ്ടേ ആ സാഹചര്യത്തിൽ അപ്പം നമുക്ക് എത്ര ദിവസം കൊണ്ടാണ് നമുക്ക് അവിടെ കണക്ഷൻ കിട്ടുക സിലിണ്ടർ അവൈലബിൾ ആവുന്നത് എത്ര ദിവസത്തിനുള്ളിൽ കിട്ടും എപ്പോഴും ചില ചില പ്രശ്നങ്ങൾ ഉള്ളത്കൊണ്ട് ഉടനെ ചില ചില നമ്മുടെ ഏജൻസിയുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടു കഴിയുമ്പോൾ നമുക്ക് ഉടനെ തരില്ല മൂന്ന് ദിവസം കഴിയട്ടെ ഒരാഴ്ച്ച കഴിയട്ടെ ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട് ആ സമയങ്ങളിൽ നമുക്ക് ഫുഡിൻ്റെ പ്രിപറേഷനും കാര്യങ്ങളൊക്കെ ഇല്ലെ അപ്പോൾ ആ അപ്പോൾ അത് എങ്ങനെയാണ് ഏത് രീതിയിലാണ് എന്തൊക്കെ പേപ്പറ് നമ്മൾ ഇവിടെ നമ്മൾ ആ ഇപ്പം നിലവിലുള്ള ഗ്യാസ് എജൻസിയിലെ കണക്ഷന് എന്തൊക്കെ പേപ്പറെല്ലാം അവിടെ ഹാജരാക്കണോ ആ പുതിയ പുതിയ പുതിയ കണക്ഷൻ എത്ര എളുപ്പം കിട്ടത്തക്ക രീതിയിൽ നമുക്ക് ഒന്ന് ചെയ്തു തന്നാൽ വളരെ ഉപകാരമായിരിക്കും ആ അത് അധികം താമസിയാതെ നമുക്ക് വേണ്ടതാണ് അതുകൊണ്ട് ഇപ്പം ഞാൻ ഒന്നു സംസാരിക്കുന്നത്